ഞാൻ ആമസോൺന്നാണ് സോഫ പിന്നെ ബുക്ക് ചെയ്തത് വളരെ നല്ല പ്രോഡക്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ട്ടമായി അതിൻ്റെ കളറും ഇഷ്ട്ടമായി ആ അതിൻ്റെ അറേഞ്ച്മെൻ്റെസ് അതിൻ്റെ ആ മോഡലെനിക്ക് ഭയങ്കര ഇഷ്ട്ടമായി ഞാൻ മനസ്സിൽ ഓർത്ത ഒരു ആ ഒരു ആൻറ്റി കളക്ഷൻ മോഡലായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ട്ടമായി കുറെ നോക്കി നടന്നിട്ട് ഏ കണ്ട് കിട്ടിയതാണത് അപ്പം എനിക്ക് അവർ ഡെലിവറി ചെയ്ത് തന്ന രീതി എനിക്ക് ഇഷ്ട്ടമായി എനിക്ക് എല്ലാം കൊണ്ടും അത് ഭയങ്കര ഇഷ്ട്ടപെട്ട ഒരു പ്രോഡക്റ്റായിരുന്നു നല്ല കളറ് കാരണം ക്ലാ ഒരു വെറൈറ്റി കളറ് വേണം എനിക്ക് എല്ലാത്തിനും വെറൈറ്റി ആഗ്രഹിക്കുന്ന ആളാണ് അങ്ങനെ വെറൈറ്റി കളറ് തന്നെ കിട്ടി സൂപ്പറായിരുന്നു